മാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ നല്ല നല്ല പെയ്ന്റിങ്ങ് ഒക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ കാണുമ്പം ഇങ്ങനെ ഒക്കെ വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏകദേശം ഇങ്ങനെ ഒക്കെ എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ട് ഞാനാകെ കെലപ്പം ആദ്യത്തെ വട്ടം തന്നെ ശരിയായിട്ട് കിട്ടണമെന്നാണ് പക്ഷേ അങ്ങനെ വരച്ച് നോക്കുമ്പം എനിക്ക് മനസ്സിലായതെന്താണെന്ന് വെച്ചാൽ നല്ലോണം കഷ്ടപെട്ടാൽ തന്നെ നമുക്ക് അതിന്റേതായ ഫലം കിട്ടുളളൂ അപ്പം ഞാൻ കുറേ കഷ്ടപെട്ടിട്ടാണ് അങ്ങനെ എങ്കിൽ എത്തിക്കാൻ നോക്കൽ കുറേ ഒന്നും ശരിയാവുക ഒന്നുമില്ല ഞാൻ യുട്യൂബിലൊക്കെ ഓരോരുത്തർ വരച്ചത് കാണുമ്പോൾ അങ്ങനെ ഒരു കടലിൻ്റെ ചിത്രം ഒക്കെ വരച്ചത് കണ്ടപ്പോൾ അങ്ങനെ എനിക്കും വരയ്ക്കണമെന്നും പറഞ്ഞ് ഞാൻ വരയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ അത് തെറ്റിപ്പോയി അതിന് ഞാൻ കുറേ കഷ്ടപെട്ട് കഷ്ടപെട്ടിട്ടാണ് അതിന് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് വരച്ചെടുത്ത് കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് എന്നൊക്കെ അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തായാലും അതിന് കുറേ കഷ്ടപ്പാട്ണ്ട്ന്ന് എനിക്ക് മനസ്സിലായി അതാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരനുഭവം പിന്നെ ഓരോ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നല്ല കഷ്ടപ്പാടാണ് അത് ഓരോന്നും വരച്ചെടുക്കാൻ എന്നെനിക്ക് മനസ്സിലായി പിന്നെ പിന്നെ ഞാൻ എന്റേതായ രീതിയിൽ വരയ്ക്കാൻ തുടങ്ങി എനിക്ക് ഏറ്റവും എന്താണ് വെല്ലുവിളിയായി തോന്നിയിട്ടുള്ളത് ആ ഞാൻ പറഞ്ഞ ആ കടലിൻ്റെ ചിത്രം വരച്ചപ്പോളാണ് അതിനാണ് ഒന്നും കൂടി ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ളത് നല്ലോണം ഗതികേടാണ് വരയ്ക്കാനെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്